ഇപ്പോൾ കലയിലും കരകൗശലങ്ങളിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ചാൻസാണ് ഈ സോഷ്യൽ മീഡിയ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ അവർക്കിപ്പം അവരുടെ കലാരംഗത്തെയും കലാപ കലാപരമായിട്ടുള്ള കഴിവുകളെയും ഒക്കെ അതിലൂടെ നമുക്ക് കാണിക്കാനൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിലൂടെ നമുക്ക് നല്ലൊരു ഓപ്പർച്യുണിറ്റി കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ വരുമാനമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അപ്പോൾ അവർക്കത് ചിലപ്പം ഇത് ഒരു നല്ലൊരു ഒരു ഇപ്പം മൺചട്ടി നിർമ്മാണം അതൊരു കരകൗശല വസ്തുവാണ് അപ്പം അത് നമ്മൾ ചിലപ്പം വിറ്റു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പം അതിലുപരി നമ്മൾ അതുണ്ടാക്കുന്ന വീഡിയോയും അതിനൊക്കെ നല്ല രീതിയിലുള്ളൊരു എങ്ങനെയാണ് തയ്യാറെടുക്കുന്നതെന്നൊക്കെ വെച്ചിട്ട് ഒരു ഒരു വ്ളോഗ് പോലെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മളത് യൂട്യൂബ് ചാനലിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനകത്തു നിന്ന് എത്ര വ്യൂവേഴ്സ് ഇപ്പം ആൾക്കാർ അതായത് ഇത് കാണുന്ന പ്രേക്ഷകർ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതുകാണുന്നതിന് അനുസരിച്ച് നമുക്കുള്ളൊരു വരുമാനം നമുക്കു തന്നെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം അത് നല്ലൊരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്